പാട്ട് പാടാൻ തുടങ്ങുന്നവരെയും പാടാനുള്ള കഴിവുള്ളവരെയും അവരെ ഞങ്ങള് നല്ല രീതിയില് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകളൊക്കെ കൊടുക്കും പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടാക്കും പാട്ട് പാടാൻ പാടാൻ പാട്ട് പാടുന്നവർ പിന്നെ എന്തുവാ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കരുത് ഐസ് ക്രീം അങ്ങനെ ഉള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് തണുത്ത ഒരാഹാരവും കഴിക്കാന് പാടില്ല തൊണ്ട നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നല്ല രീതിയില് ക്ലാസ്സിന് കൊണ്ടാക്കി അവരെ

നിർദ്ദേശങ്ങൾ ചെയ്യുകയും അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പാട്ട് പാട്ട് പാടാ പാട് പാടാൻ കുറച്ചെങ്കിലും അറിയാവുന്നവരെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കും നമുക്ക് ഇല്ലാതപോയ കഴിവ് മറ്റുള്ളവര് ക്ക് പറ്റുമ്പോൾ അവരെ നമ്മള് പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് അപ്പോള് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും നല്ല രീതിയിൽ പാട്ട് പാടും പാട്ട് പാടുന്നവരാണെങ്കിൽ അവരെ നല്ല രീതിയില് പ്രോത്സാഹിപ്പിക്കണം അവര്ക്ക് ഇത്തിരിം ഇതായിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് പാട്ട് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ അവരെ പാട്ട് പഠിപ്പിക്കുക തന്നെ വേണം അവരെ പാട്ട് പഠിപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് ഒക്കുന്ന എന്തേലും സഹായം ചെയ്യാന് പറ്റുമെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം കുട്ടി പാട്ട് പഠിച്ച് വലിയൊരാളായി അല്ലെങ്കില് നല്ലൊരു സംഗീത ലോകത്തെ നല്ലൊരു സംഗീതം അറിയുന്നൊരാളാവണം എന്നാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാന് പറ്റൂള്ളൂ പാട്ട് പഠിപ്പിക്കുകയും അവരെ പാടി പാടിപ്പിക്കുകയും അവരെ ഏത് സദസ്സിലും അവരെ കൊണ്ടൊരു പാട്ടെങ്കിലും പാടിപ്പിച്ച് അവരെ കഴിവുകളെ പുറത്ത് ഇതാക്കി പുറത്ത് കാണിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കും നല്ല രീതിയിൽ നിങ്ങൾ പാട്ട് പാടും നിങ്ങൾ നിങ്ങളെ കൊണ്ടത് പറ്റും നിങ്ങൾ പാട്ട് പഠിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളവർക്ക് പറഞ്ഞ് കൊടുത്തവരെ സംഗീതം പഠി പഠിക്കുന്നതിനോട് താല്പര്യം താല്പര്യമുള്ളവരാക്കി മാറ്റിയെടുക്കും അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തവരെ അവരെ പഠിപ്പിക്കും